ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതം അനുഭവിക്കുന്നുണ്ടോ എന്നൊക്ക പറഞ്ഞാൽ അനുഭവിക്കുന്നുണ്ടോ എന്നു പറഞ്ഞാൽ അനുഭവിക്കുന്നുണ്ട് ഒരു പകുതിയോളം സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് പ ക്ഷെ ഒരു നൂറ് ശതമാനത്തിൽ ഒരു എൺപത് ശതമാനം പേർക്കാണ് ഈ പറയുന്നത് കിട്ടാറുള്ളൂ അതായത് ജോലിയാണ് എങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും തുല്യ അവസരങ്ങൾ ആണെങ്കിലുമൊക്കെ പിന്നെ എസ്റ്റി വിഭാഗത്തിലെ കുട്ടികൾക്കാണ് സ്ത്രീകൾക്കാണ് കുറച്ചും കൂടെ മുൻഗണന പിന്നെ ഒരു സ്ത്രീ ഇപ്പം രാത്രി ഇറങ്ങി നടക്കുകയാണെങ്കിലും ഒരു പത്ത് മണി കഴിഞ്ഞാലും നമ്മുടെ ഓരോരോ സ്ഥലങ്ങൾ നിൽക്കാനൊക്ക പേടിയായിരിക്കും പിന്നെ ഈ വനിതാ പോലീസൊക്ക ഉള്ളതു കൊണ്ട് ഇവരുടെ സുരക്ഷിതമൊക്കെ കുറച്ചും കൂടെ എന്താണ് ഇംപ്രൂവ് ആയിട്ടുണ്ട് പിന്നെ പിന്നെ ഇവരുടെ ജോലി കാര്യങ്ങളൊക്കെ അതാത് പോലെ അത്യാവശ്യ എല്ലാവർക്കും കിട്ടുന്ന ജോലി കിട്ടുന്ന രീതി എന്നാണ് പോവുന്നത് കാരണം ഇപ്പം എന്താണെന്ന് വച്ചാൽ എല്ലാ ഇടത്തും സ്ത്രീകൾക്കാണ് മുൻഗണന